ഞാന് കഴിഞ്ഞ ദിവസം ഒരു ഷൂസ് വാങ്ങിച്ചിരുന്നു ഒരു വ വൈറ്റ് കളർ ഷൂവാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു പച്ച കളറാണ് ചൊറി പിടിച്ചത് പോലെ ഒരു ഷൂ ആണ് കിട്ടിയത് അപ്പോള് എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെനെയൊരു ഒരു ഒരു ഷൂസ് ഇങ്ങനെയൊരു റോങ്ങായിട്ട് തെറ്റായ രീതിയില് നമ്മുടെ കയ്യിലെത്തുന്നത് അതൊന്നും നമ്മൾ ചോദിച്ചുചെന്ന് ഇത് ഇത്രയും വലിയ ഒരു സൈ വെബ്സൈറ്റില്നിന്നു വാങ്ങിച്ചിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം കിട്ടുന്നതെന്തുകൊണ്ടാണ് അജിയോന്നാണ് വാങ്ങിച്ചത് പിന്നെ വെബ്സൈറ്റില്നിന്നാണ് വാങ്ങിച്ചത് വളരെ പ്ര പേരുകേട്ട വെബ്സൈറ്റാണ് അത് മാത്രമല്ല യിൽ നിന്നാണ് ഇത് ബ്രാൻഡ് ഓ ഇത്രയും നല്ലൊരു ബ്രാൻഡിൽന്നാണ് വാങ്ങിച്ചത് എന്തുകൊണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുമാത്രമല്ല ഇത് എങ്ങനെ റിട്ടേൺ എനിക്കത് റിട്ടേൺ ചെയ്യണം എനിക്ക് ആ ഒരു ചെയ്യണം ഈയൊരു ലഭിച്ചത് ഞാൻ തിരിച്ചയക്കാനാണ് ആരംഭിക്കുന്നത് റിട്ടേൺ ചെയ്യാനാണെനിക്കത് വേണ്ട അപ്പോഴതിൻ്റെ പ്രോസീജ്യര് എന്തൊക്കെയാണ് കാര്യങ്ങളെങ്ങനെയാണ്